ഹലോ ആ ചേട്ടാ എനിക്ക് കുറച്ച് തേങ്ങ വേണല്ലോ അവിടെ ഫാം ഉണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞു അത് അറിഞ്ഞോണ്ട് വിളിച്ചതാണ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വില ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു കല്ല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടീട്ട് ആയിരുന്നു ഞങ്ങൾക്ക് വിലയുടെ ഒക്കെ അനുസരിച്ച് വാങ്ങിക്കാൻ ആയിട്ടാ അപ്പോൾ അത് വില എങ്ങനെയാണ് പറ്റത്തുള്ളൂ

ബാക്കി ഇല്ല ആ അപ്പോൾ ഞങ്ങൾ അതിനെ പറ്റിയെ പുറത്ത് ഉള്ള വിലയും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ ആ ഇവിടെ മാർക്കറ്റിൽ ഒക്കെ എന്നാൽ വിലയാന്ന് ഒന്ന് ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ അല്ലെ പിന്നെയെ വില കൂടുതൽ ആണോ കുറവ് ആണോ അല്ലയോ അറിയത്തില്ലല്ലോ ഞങ്ങൾക്ക് അപ്പം ഏഹ്

ആക്കാം അങ്ങനെ തരാ അല്ലേ എന്നാൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ അതെ അന്വേഷിച്ചിട്ടെ ഒന്ന് അന്വേഷിക്കട്ടെ മാർക്കറ്റിൽ എന്നിട്ട് മൂപ്പത്തിരണ്ട് ഒക്കെ ഇച്ചിരി ഏറെ തേങ്ങ എടുക്കുമ്പോൾ മൂപ്പത്തിരണ്ട് ഒക്കെ ഇത്തിരി വില കൂടുതൽ ആണെന്ന് ഉള്ളത് ആണ് എൻ്റെ അറിവിൽ ഇല്ല ഏഹ് ആ മാർക്കറ്റിൽ ഒന്ന് അന്വേഷിക്കട്ടെ അതിനെ പറ്റി അത് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇച്ചിരി കല്ല്യാണ ആവശ്യത്തിന് ആയിരുന്നു അപ്പോൾ ഏറെ തേങ്ങ വേണം താനും അപ്പോൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ എങ്ങനെയാണ് ഇതിലും വില കുറച്ച് ഒരിടത്ത് കിട്ടോ ഇല്ലയോന്ന് ഒന്ന് കൂടെ അന്വേഷിക്കട്ടെ ഏഹ് അങ്ങനെ ആ എന്നാൽ അന്വേഷിക്കട്ടെ ആ ശരി ഓക്കെ